എല്ലാവരുമായും ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കല്യാണങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കുമൊക്കെ നമ്മൾ ആളുകളെ ക്ഷണിക്കുകയും അവർ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന് ആഹാരം കഴിക്കയും എല്ലാവരുമൊത്ത് സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ നടത്തുന്ന അന്നദാനങ്ങൾ എല്ലാം നമ്മൾ പങ്കെടുക്കാറുണ്ട് അത് എല്ലാവരുമായി ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണത് കുടുംബത്തിലെ കല്യാണങ്ങൾ ഒക്കെ നടക്കുമ്പോൾ തന്നെ എല്ലാ വ്യക്തികളേയും ക്ഷണിച്ച് അവരെ എല്ലാം വന്നിരുന്ന് ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കല്യാണങ്ങളുടെയും മറ്റു ചടങ്ങുകളുടെയും